ആ നമ്മുടെ ഗ്രാമത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ താഴെ ഒരു തോടുണ്ട് അതിൻ്റെ തൊട്ടു മുകളിൽ തന്നെ കിണറുണ്ട് അതിലാന്ന് കൂടി വെള്ളം നല്ലത് കണക്കെ വരുന്നത് തോട്ടിൽ എന്ന് വെച്ചാൽ തോട്ടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ കൃഷികളും കാര്യങ്ങളൊക്കെയാണ് പാവൽ വാഴ നെല്ല് ആ കപ്പ അങ്ങനെ കുറേ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇവിടെ തോട്ടിൽ നിന്നാണ് എല്ലാവരും ആ വെള്ളം അങ്ങോട്ടേക്ക് പോകാൻ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ എത്രയാണ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് വീടുകളിലുണ്ട് ആ വീടുകളിലോട്ട് ഫുള്ള് വെള്ളം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടാങ്കിൽ നിന്നാണ് അപ്പം അതെ ടാ കിണറ്റിൽ നിന്ന് വന്ന് മേലെ ഒരു ടാങ്കിൽ വന്ന് ബാക്കിയെല്ലാം വീട്ടിലോട്ടും അങ്ങനെ പോക്കാണ് ഇപ്പം അപ്പുറം സൈഡ് കൂടെ തോടും ഇപ്പുറം സൈഡ് കൂടെ ചെറിയൊരു നേർ ചാലും ആണുള്ളത് ഫുള് താഴെ മൊത്തം കൃഷി തന്നെയാണ് ഇപ്പം പലരും ഇവിടെ മേലെയും വീടിൻ്റെ പരിസരത്തായിട്ടും പാവലും പടവലവും അങ്ങനെ പയറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ജലസേചനത്തിന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വെള്ളം അത്യാവശ്യം തോട് വഴി ഞാൻ തിരിച്ച് പോകുകാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ വെള്ളവും ഉണ്ട് എല്ലാ കാര്യങ്ങളും വലിയ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പോകുന്നുണ്ട് പച്ചക്കറിയൊക്കെ നമ്മൾ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് വാങ്ങൽ ഫ്രൂട്ടസ് ഒക്കെ അടിപൊളിയാണ്